ആ ഞങ്ങളിവിടെ കാറിൻ്റെ പണി നോക്കാൻ വേണ്ടി വിളിക്കുവായിരുന്നു നമുക്കാണേ നല്ല കാറൊക്കെയാണ് എതൊക്കെയാണ് ഉള്ളത് അവിടെ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇടുന്നത് ആ ആ ആ വേറെ ഏതൊക്കെയാണ് ഉള്ളത്

ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണോ വരുന്നത് ഫൈവ് ലാക്ക് ആണോ ആ ഒരു ഫോർ ലാക്ക് ത്രീ ലാക്ക് അതിനടുത്തൊക്കെ വരുന്ന ആ ഇ എം ഐയിൽ നോക്കാൻ വേണ്ടീട്ടായിരുന്നു ഒരു വൺ ഇയർ പറ്റുവോ ആ ഒരു വൺ ഇയർ ടു ഇയർ അത്രേക്കെ മതിയായിരിക്കും

ലോണിടുന്നുണ്ടല്ലേ സ്റ്റാർട്ടിങ് തൊണ്ണൂറായിരം തരണം അല്ലെ

ഓക്കേ ഓക്കേ അപ്പോൾ ഒരുമാസം നമുക്ക് എത്രവെച്ചു അടക്കേണ്ടിവരും രണ്ടായിരത്തി അല്ലേ വേറെ ഏതു കമ്പനിയാണ് ഉള്ളത് വണ്ടീൻ്റെ ആ ആ ആ അല്ല ഇതിൻ്റെ തന്നെ വേറെ ഏതാ അത്യാവശ്യം നല്ല കാറൊക്കെ ഏതൊക്കെയാണ് ഉള്ളത് അതിനെത്രയാണ് വരുന്നത് ആ ആ ആ ആ ഓ അതാല്ലേ ആ ഞാൻ ജസ്റ്റ് ഇതൊന്നു ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊന്നറിയാൻ വേണ്ടീട്ട് ആ ആ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് വരാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം